വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും തൊഴിലിന്റെ കാര്യത്തിലും സാമൂഹിക നിലപാടിന്റെ കാര്യത്തിലൊക്കെ അടിസ്ഥാനത്തില് കോഴിക്കോട് ജില്ല മുന്നോട്ടു വന്നു സ്ത്രീകളോട് സ്ത്രീകള്ക്ക് ഏതു രാത്രി വേണമെങ്കിലും നമുക്ക് പിന്നെ ധൈര്യമായിട്ട് പുറത്തുകൂടി നടക്കാന് പറ്റുന്നൊരു സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കാരണം പേടിക്കാന് ഒന്നുമില്ല പിന്നെ വെല്ലുവിളിയുള്ള അവസരങ്ങളൊക്കെ എതൊരു സ്ത്രീക്കും ലിംഗവിവേചനം ഉണ്ട് കാരണം നമ്മൾ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല കുറേ പിന്നെ അവരെ താഴ്ത്തിക്കെട്ടി പറയുന്നതല്ല ഈ അതായത് പിന്നെ എന്താ ഇപ്പം അവര് അവരെ പറയുക അങ്ങനെ കുറേ വേറെ രീതിയില് കമ്യൂണിറ്റിയിൽപ്പെട്ട ആള്ക്കാരുകള് പിന്നേ കോഴിക്കോട് ജില്ലയില് ഒത്തിരി പേരുണ്ട് ട്രാന്സ് കമ്യൂണിറ്റിയിൽപ്പെട്ടവര് അവര് നമ്മുടെ അവര് നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് അവര് നമ്മുടെ സൊസൈറ്റിയില് നമ്മുടെ കൂടെ അവര് അവരുടേതായ മാര്ഗ്ഗം ജീവിതമാര്ഗ്ഗം കണ്ടുപിടിച്ച് അവര് ജീവിക്കുന്നുണ്ട് അതേപോലെ ഈ ശൈശവ വിവാഹം ഇല്ല ഇനി ലിംഗപക്ഷപാതം ചില ജോലിയ്ക്ക് പണ്ടുകാലത്തുണ്ടായിരുന്നു ഇപ്പം ഡ്രൈവര് പണിക്ക് വരെ സ്ത്രീകള് മുന്നിലോട്ടു വന്ന കാലമാണ് ബസ് ഓടിക്കുന്നു ലോറി ഓടിക്കുന്നു പിന്നെ പൈലറ്റാവുന്നു അപ്പോൾ എല്ലാത്തിലും ലിംഗ വിവേചനം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് സ്ത്രീകള്ക്ക് വിവേചനം നിന്നിരുന്ന കാലത്ത് നിന്നും സ്ത്രീകളും പുരുഷന് സമമാണെന്നുള്ള കാഴ്ചപ്പാടിലേക്കും കാലത്തിലേക്കും എത്തി നമ്മള് അപ്പം അങ്ങനെ ഒരു പ്രശ്നം പിന്നെ സ്ത്രീകള് നേരിടുന്നില്ല കോഴിക്കോടില്